ഹലോ ഉപുഭോക്തൃ സേവന വകുപ്പല്ലേ ഞാൻ കഴിഞ്ഞ മാസം വീട്ടിലെ ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പറുമായി ബന്ധപ്പെട്ട ഒരു പരാതി വൈദ്യുത ബോർഡിൽ സമർപ്പിക്കുകയുണ്ടായി ഇ മെയിൽ വഴിയാണു സമർപ്പിച്ചത് എന്നാൽ നാളിതുവരെയായും വൈദ്യുത ബോർഡിൽ നിന്ന് ഒരു മറുപടിയും ലഭിക്കുകയുണ്ടായിട്ടില്ല തെറ്റായ കൺസ്യൂമർ നമ്പർ പ്രകാരമുള്ള വൈദ്യുതി ബില്ലാണ് എനിക്കടയ്ക്കേണ്ടിവരുന്നത് അതുകൊണ്ടുതന്നെ എത്രയും വേഗത്തിൽ ഇതിനൊരു പരിഹാരം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആയതിനാൽ തന്നിരിക്കുന്ന ഫയലിലെ ഇ മെയിൽ വിലാസം പരിശോധിച്ച് തന്നെ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടുകൊണ്ടുള്ള ഇ മെയിൽ മറുപടി ഉണ്ടാവുമെന്നു പ്രതീക്ഷിക്കുന്നു നന്ദി